എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോണാണ് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരുടെ ഇടയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് ഫീല് ചെയ്യുന്നത് കാരണമെന്താന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൊറോണയൊക്കെ വന്നത് കൊണ്ട് പിള്ളേർ ഒരേ ഫോണിൽ കളിയാണ് കാരണം ഓൺലൈൻ ക്ലാസ്സുകൾ അങ്ങനെ പലതരം ക്ലാസ്സുകൾ ഇപ്പം മൊബൈലിലൂടെയും ലാപ്ടോപ്പ് വഴിയൊക്കെയാണ് നടത്തുന്നത് അപ്പോൾ മൊബൈലിനു അഡിക്റ്റ് ആയിരിക്കുകയാണ് കുട്ടികൾ മൊബൈൽ അഡിക്റ്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയിരിക്കുവാണ് അപ്പോൾ നമ്മളതിന് പ്രചോദിക്കാൻ വേണ്ടീട്ടെന്നു പറഞ്ഞുകഴിഞ്ഞാൽ മൊബൈൽ ഇപ്പോൾ നമ്മൾ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ അവർ ആത്മഹത്യ ചെയ്യും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ് ഇപ്പോൾ കൂടുതലും മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആയിരിക്കുന്ന കുട്ടികളെ നമ്മൾ വല്ലാണ്ട് എന്താ പറയാ ഒന്നും എന്താ പറയാ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത് ഇപ്പം നമ്മളെന്തു ചെയ്യുക കൂടുതലും ക്ലാസ് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് കൊണ്ടുനടക്കാൻ വേണ്ടീട്ട് ശ്രമിക്കുക ഓൺലൈൻ ക്ലാസുകൾ മാത്രമാക്കുക ആ സമയങ്ങളിൽ മാത്രം ഫോണ് കൈയ്യിൽ കൊടുക്കുക അല്ലാത്ത സമയത്ത് ഫോണ് കൈയ്യിൽ കൊടുക്കാണ്ടിരിക്കുക പിന്നെ കൂടുതലായിട്ടും നമ്മളെന്താ ചെയ്യേണ്ടതെന്നു വെച്ചുകഴിഞ്ഞാൽ ഓൺലൈൻ ക്ലാസ് പരമാവധി ഒഴിവാക്കി ഓഫ്ലൈൻ ക്ലാസുകൾ കൂടുതലായിട്ടും കണ്ടുപിടിച്ച് അങ്ങനെ പോവുക പിന്നെ ഇത് ഓഫ്ലൈൻ ക്ലാസ്സൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ മൊബൈൽ ഫോണ് മെല്ലെ പതുക്കെ ഒഴിവാക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പിള്ളേരുടെ ബുദ്ധിക്കും എല്ലാത്തിനും നല്ലത്